എനിക്ക് ഞാൻ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ആയോധനകലകളൊന്നും കാര്യമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് കൊണ്ട്തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ എനിക്ക് പഠിക്കാൻ താത്പര്യം ഉണ്ട് കളരി അതായത് വാൾപ്പയറ്റ് കളരി ഇത് രണ്ടും എനിക്ക് പഠിക്കാൻ താത്പര്യം ഉണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ കുറവാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു പക്ഷേ ഈ ഭാഗത്ത് വളരെ കുറവാണ് ആയോധനകട കലകൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റ് കളരി കളരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗമുറ പോലെയാണ് കളരി നമ്മുടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ ബോഡി പിന്നേ അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് പസ്സ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒന്നല്ല അത് നിരന്തരമായ പരിശീലനത്തിലൂടെ ഒന്ന് വന്നുചേരുന്ന ഒന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്